ഹലോ ആരായിരുന്നു അതെയല്ലോ ആ രാഹുലിൻ്റെ ഫാദറാണല്ലേ ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു എന്തായിരുന്നു വിളിച്ചത് ആ അതിനെപ്പറ്റിത്തന്നെ പറയാനാണ് ഞാന് വിളിച്ചത് ക്ലാസ്സിലിരുന്ന് വാചകമടിയും ഇതുമല്ലാതെ പേപ്പറിലൊരു സാധനവും കാണുന്നില്ല ഇല്ല ഞാനോർത്തു അവസാനമാകുമ്പോഴെങ്കിലും എന്തെങ്കിലും പഠിച്ചെഴുതി കയറി കയറിക്കോളുമെന്ന് പക്ഷെ ഭയങ്കരം മോശം സ്കോർസാണ് പ്രത്യേകിച്ച് മാത്സിന് അവന് ക്ലാസ്സിൽ ശ്രദ്ധിച്ചുപോലും ഇരിക്കാറില്ല സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ്സാണ് ഈ ഒമ്പതില് പഠിക്കുന്ന കൊച്ചിന് എന്ത് കട്ടിയുള്ള പ്രോബ്ലം വരാനാണ് ഭയങ്കരം സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ് പക്ഷേ ഭയങ്കരം ലെയ്സിയായിട്ടിരിക്കുകയാണ് അവനാണെങ്കില് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാല് പഠിക്കാവുന്ന കേസെയുള്ളൂ പിന്നെ ഇല്ല മലയാളമൊക്കെ എന്താണ് എഴുതാനുള്ളത് അക്ഷരമറിയാമെങ്കില് തള്ളിക്കയറ്റി വെയ്ക്കാവുന്നെയുള്ളൂ പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ഇല്ല നിങ്ങള് വീട്ടില് വന്നാല് ഇവൻ പഠിക്കാറില്ലേ നിങ്ങളെന്ത് പേരൻറ്റാണ് നല്ല കോൺഫിഡൻസായിട്ടാണല്ലോ പറയുന്നത് നിങ്ങള്ക്കിതൊന്നും ആ ഇല്ല രാഹുലിൻ്റെ ഫാദറിൻ്റെ പേരെന്താണ് അഭിനവ് അഭിനവെന്ത് ചെയ്യുന്നു ഡോക്ടറാണല്ലേ അപ്പോള് വീട്ടില് വരവ് കുറവായിരിക്കും വൈഫിന് എന്താണ് ജോലി ഓക്കെ അപ്പം ഇല്ല വീട്ടിലപ്പം രാഹുലിനെ നോക്കുന്നതാരാണ് ഒറ്റയ്ക്കായിരിക്കുമല്ലേ അത് അത് നിങ്ങളൊന്ന് കുറച്ചുകൂടെ നിങ്ങളുടെ ചെറുക്കനെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇല്ലെങ്കില് അവന് നല്ല പൊട്ടൻഷ്യലുണ്ട് പക്ഷേ പഠിക്കാൻ മടിയുള്ളത് കൊണ്ടാണ് അവനത്രയും ലേസിയായിപ്പോകുന്നത് അപ്പം ഇത് ഇനിയിപ്പം പഠിക്കാൻ ഇത് ചെയ്യുകയാണെങ്കില് അവന് ഞാന് വേണമെങ്കില് രണ്ടു മൂന്ന് എക്സ്ട്ര ക്ലാസ്സൊക്കെ എടുക്കാം വൈകുന്നേരം ട്യൂഷന് പോലെ എന്റെയടുത്ത് വിട്ടാല് മതി അതിൻ്റെ കാരണം ഇല്ലേ നല്ലൊരു ബ്രൈറ്റ് സ്റ്റുഡൻറ്റാണ് വെറുതെ അവൻ്റെ എഫേർട്ട് വേസ്റ്റായിപ്പോകാതിരിക്കാനാണ് ഞാനീ പറയുന്നത് അവന് ദിവസമൊരു ഒരു മണിക്കൂറെങ്കിലും ഇരുന്ന് മര്യാദയ്ക്ക് നോക്കിക്കഴിഞ്ഞാല് എല്ലാം പഠിക്കാവുന്ന കേസെയുള്ളൂ ആ പിന്നെ കുറേ കൂട്ടുകെട്ടുമുണ്ട് അത് നല്ല അലമ്പുമാണ് ആ അവന് അവിടെ അവിടെയുണ്ടോ എന്തോ അവന് വീക്കെന്ന് പറഞ്ഞാല് ഞാന് പറഞ്ഞില്ലേ മാത്സ് മാത്സിൽ സത്യം പറഞ്ഞാല് സിംപിളാണ് ഈ ഈ ഈ ഇയറില് ഒമ്പതാം ക്ലാസ്സില് മാത്സ് ഭയങ്കരം സിമ്പിളാണ് പക്ഷേ അവൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രം വരുന്ന കുറവുകള് മാത്രമേയുള്ളൂ

ആ ആ പിന്നെ മെയിനായിട്ടും നിങ്ങള് വീട്ടിലുണ്ടാകേണ്ടത് ആഴ്ചയിലൊരു ദിവസമെങ്കിലും വീട്ടിലുണ്ടാകേണ്ടത് നല്ലതായിരിക്കും കാരണം ഇപ്പോള് സൺഡേസ് മാത്രമാണെങ്കിലും ഇല്ലെങ്കില് അവനും അവൻ്റെ കളിയും ചിരിയുമൊക്കെ കാണുമല്ലോ ആ അപ്പോള് നിങ്ങളത് ശ്രദ്ധിക്കേണ്ടത് വളരെ കഠിനമായ കാര്യമാണ് പിന്നെ മെയിനായിട്ടും നിങ്ങൾ ഡോക്ടറാണ് ഓക്കെ ഞങ്ങൾ സമ്മതിച്ചു എമർജെൻസീസ് കാണും അറ്റ് ലീസ്റ്റ് വൈഫിനോടെങ്കിലും ഒരു ദിവസമെങ്കിലും ലീവെടുത്ത് ഇതാക്കി ഒരു മാസത്തിലൊരു ദിവസമെങ്കിലും ഇല്ലെങ്കില് ഒരു പ്രാവശ്യമെങ്കിലും ലീവെടുത്ത് മോനെ ഇരുത്തി പഠിപ്പിക്കാന് പറയണം കാരണം അവൻ പഠിച്ച് തുടങ്ങുകയാണെങ്കില് പിന്നെ ആ ഒരിത് കിട്ടിക്കഴിഞ്ഞാല് അവൻ പിന്നെ പഠിച്ചുകൊള്ളും ആ ഈ പഠിക്കാൻ ഇത് ചെയ്യാഞ്ഞിട്ടല്ല പക്ഷേ അവന് ട്രൈ ചെയ്താല് കിട്ടാവുന്ന കേസെയുള്ളൂ പിന്നെ മലയാളമൊക്കെ അക്ഷരങ്ങളൊക്കെ ഒരിത്തിരി പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും ഇത്തിരി ഇത്തിരി നല്ല വീക്കാണ് കഴിഞ്ഞദിവസം ഞാൻ ആ പേപ്പര് വായിച്ചിട്ട് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ലെന്നേയുള്ളൂ മ്മ് ഒന്ന് വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മ്മ് ശരിയെന്നാല് അഭിനവ് ആ ഓക്കെ